ചിത്രം വരയ്ക്കുമ്പം എല്ലാ ഉപകരണങ്ങളും കൊണ്ട് വരയ്ക്കുന്നതും എളുപ്പമാണ് നല്ലവണ്ണം ചിത്രം വരയ്ക്കുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ എല്ലാ സാധനങ്ങളും അവർക്ക് വരയ്ക്കാൻ എളുപ്പമുള്ള സംഭവം തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പെൻസിൽ കൊണ്ട് തന്നെയാണ് ഞാൻ ചിത്രങ്ങൾ വരയ്ക്കാറുള്ളത് പെയിൻറ്റ് കൊണ്ടൊന്നും വരയ്ക്കാൻ ആയിട്ടില്ല ചിത്രം പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നത് ആണ് എനിക്കിഷ്ടം എന്താണ് വെച്ചാൽ അപ്പം നമുക്ക് ഷാർപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ചിത്രം വരച്ചിട്ട് നമുക്ക് അതിനകത്ത് ഡ്രോയിംഗ് ഇങ്ങനെ ഷാർപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത് പെൻസിൽ തന്നെയാണ് അതിന്റെ മേലെക്കൂടെ നമുക്ക് മാർക്കർ വെച്ചിട്ട് അതിന്റെ മേലെക്കൂടെ ബ്ലാക്ക് കളർ മാർക്കർ വെച്ചിട്ട് നമുക്ക് വരച്ചുകൊടുക്കാറാണ് ഞാൻ പതിവ് അതുകൊണ്ട് തന്നെ നല്ലൊരു വൃത്തിയും നല്ലൊരു ഷൈനിംഗ് ഒക്കെ കിട്ടാറുണ്ട് ചിത്രം ഒറിജിനൽ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പം ആ അപ്പം അങ്ങനെ അതുകൊണ്ട് ഷൈനിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെൻസിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അതാണ് എളുപ്പം എന്ന് എനിക്ക് തോന്നിയത്